രാം ദേവ് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു യോഗ ഗുരുവാണ് യോഗ എന്നത് വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അതായത് നമ്മുടെ ലോകത്ത് ഇന്ത്യയിൽന്ന് അല്ല എല്ലായിടത്തും നിലനിന്നിരുന്ന ഒരു ഒരു ഇതാണ് മെഡിറ്റേഷൻ ആണോ അത് ഒരു മെഡിസിൻ ആണോ വേണമെങ്കിൽ എന്തു വേണമെങ്കിലും പറയാം രോഗം നമുക്ക് ചില രോഗങ്ങൾ യോഗ വഴി യോഗയിലൂടെ നമുക്ക് നേരെ ആക്കാം പറ്റുമെന്നൊക്കെ പറയുന്നതൊക്കെ വിശ്വാസം വിശ്വാസമാണ് കുറേ ബുക്കുകൾ എഴുതീട്ടുണ്ട് ചിലർ പറയുന്നുണ്ട് യോഗ തുടങ്ങിയത് അതായത് ക്രിസ്തു വർഷത്തിന് മുൻപും ക്രിസ്തു വർഷത്തിന് പിന്നും എന്നൊക്കെ പറയുന്നുണ്ട് പതഞ്ജലി അങ്ങനെ വലിയ വലിയ ഗുരുക്കൻമാരുണ്ട് അപ്പം യോഗ എന്നത് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ചില ചിലർ യോഗ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അപ്പം നമ്മുടെ മനസ്സിനും മൈൻ്റിനും ശരീരത്തിനും ഒരു ഉണർവാണ് യോഗ പിന്നെ നമ്മുടെ കൈക്ക് ഒരു എക്സസൈസാണ് യോഗ അപ്പം നമ്മൾ യോഗ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ബോഡീൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യോഗ ചെയ്യുന്നത് യോഗ എന്നത് പറഞ്ഞത് ഒരു ആയോധന കല പോലെ ഒരു മെഡിസിൻ ആണ് പണ്ട് കാലം തൊട്ടേ പ്രചരണത്തിൽ ഉള്ള ഒന്ന് പെട്ടെന്ന് പൊട്ടി മുളച്ചതല്ല കാലങ്ങളായി ഉള്ള ഒന്നാണ് യോഗ അപ്പം അത് നമ്മൾ രാം ദേവ് പോലുളള ഗുരുക്കൻമ്മാർ നമ്മളെ അതൊക്കെ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ അതിന് നല്ല രീതിയിൽ പിന്നെ പ്രചരണത്തിൽ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരിത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അപ്പം അതെല്ലാം ചെയ്യാൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്